ഇപ്പോൾ ഞാ നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം കുടുംബം ആണ് മെയ്നായിട്ടുള്ള കാര്യം കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏതറ്റം വരെ പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയ്നായിട്ട് നമ്മൾ ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം അപ്പം കുടുംബം കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി എന്ത് കാര്യമുള്ളൂ ഇപ്പോൾ ഒരു കുടുംബമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ അമ്മ ഭാര്യ മകൻ അപ്പം ഇല്ലെങ്കിൽ ൽ മകൾ അങ്ങനത്തെ ഒരു കുടുംബമായിരിക്കും മെയ്നായിട്ട് എല്ലാവർക്കും ഉണ്ടാവുക അപ്പം അവരായിട്ട് അവരുടെ കാര്യം നോക്കുക അവർക്ക് വേണ്ടത് സാധിച്ച് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരിക്കും അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിലുള്ള ചിലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു പതിനായിരമോ പന്ത്രണ്ടായിരം രൂപക്കക്കൊന്നും പണി എടിത്തിട്ട് ഒരു കാര്യമില്ല അപ്പം നല്ല രീതിയിലുള്ള കാശും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രമിക്കേണ്ടത് ഞാനങ്ങനെയാണ് ശ്രമിക്കാറുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്റൊരു വ്യക്തികത ലക്ഷ്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതുതന്നെയാണ് നമ്മുടെ കുടുംബത്തെ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് നമ്മളെയിപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അച്ഛൻ അമ്മ പിന്നെ ഭാര്യ അങ്ങനത്തെ അവരൊക്കെയാണ് കൂടുതലായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാറുള്ളത് വേണമെങ്കിൽ പറയാം